ഞങ്ങളുടെ നാട്ടിൽ കുറെയേറെ ഉൽസവങ്ങളാണ് നടക്കാറുള്ളത് അതിൽ ഒന്നാമതന്നെയായിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു നരസിംഹസ്വാമീ ക്ഷേത്രത്തിലെ ഉൽസവമാണ് അവിടെന്നുപറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽസവം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് രണ്ടു ദിവസത്തെ ഉത്സവമായിരിക്കും അതുകൊണ്ട് വീടിൻ്റെ അടുത്തായോണ്ട് തന്നെ ഞങ്ങൾ മുഴുവൻ സമയവും ഉത്സവത്തിൽ അമ്പലപറമ്പിൽ തന്നെയായിരിക്കും അവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു നേരം ഭക്ഷണം ഉണ്ടാവും എല്ലാം ഉണ്ടാവും കൂട്ടുകാരുവായിട്ട് ഞങ്ങൾ ഏതുനേരവും അമ്പലപറമ്പിൽ തന്നെയാരിക്കും പിന്നെ കലാപരിപാടികളുണ്ടാവും ഡാൻസ് പാട്ട് ഞങ്ങൾ എല്ലാത്തിനും പങ്കെടുക്കാറുമുണ്ട് പിന്നെയുള്ളത് ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള ഉണ്ണിമഠം അമ്പലത്തിലെ ശിവരാത്രി മഹോത്സവമാണ് അത് ശിവരാത്രിയുടെ സമയത്താണ് ഉണ്ടാവാറ് അത് ശിവരാത്രിയുടെ അന്നുതന്നെ അവിടെയൊരു ശിവലിംഗ പൂജ എന്ന് പറയുന്ന പൂജ ഉണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കാറുവുണ്ട് പിന്നെയുള്ളത് ഇവിടെ വെമ്പിലിന്ന് പറയുന്ന ഒരു അമ്പലവാണ് ആ അമ്പലത്തിൽ ആറ് ദിവസത്തെ പരിപാടിയാണ് ഉണ്ടാവാറുള്ളത് ഓരോ ദിവസവും ഓരോ കലാപരിപാടിയായിരിക്കും ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പിന്നെ നാട്ടിലുള്ള പിള്ളേരുടെ ഡാൻസ് എല്ലാത്തിലും ഞങ്ങൾ പങ്കെടുക്കയും കൂടെയൊക്കെ ചെയ്യും കൂട്ടാരുമൊത്ത് ഞങ്ങൾ ഐസ് ക്രീം തിന്നും ബലൂൺ വാങ്ങിച്ചും എല്ലാം ഞങ്ങൾ അമ്പലപറമ്പിൽ തന്നെ ഇരിക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസങ്ങളായിരുന്നു അതൊക്കെ പിന്നെയുള്ളത് ഞങ്ങളുടെ ഇവിടെയുള്ള പള്ളിപെരുന്നാളാണ് പള്ളിപെരുന്നാളിനും ജാതിമതഭേതമന്യേ എല്ലാവരും അമ്പലത്തിലായാലും പെരുന്നാളിനായാലും എല്ലാവരും പങ്കെടുക്കാറുണ്ട് പള്ളിപെരുന്നാളിന് രാത്രി തലേദിവസം പ്രദക്ഷണം ഇറങ്ങും അതെല്ലാം കാണാൻ കൂട്ടാരൊത്ത് പോവാറുണ്ട് വളരെ നല്ല ഓർമയാണത് നൽകുന്നത് ഉൽത്സവങ്ങളെപ്പറ്റി